മാധ്യമങ്ങളെക്കുറിച്ചു പറയുകയാണെങ്കിൽ മാതൃഭൂമി മലയാളമനോരമ തുടങ്ങിയ ഒരുപാട് നിരവധി മാധ്യമങ്ങൾ നമുക്കറിയാവുന്നതാണ് പക്ഷേ ഇന്ന് വരുന്ന ഇന്ന് നമ്മുടെ പത്രങ്ങളിൽ മാധ്യമങ്ങളിൽ അച്ചടിച്ചുവരുന്ന വാർത്തകൾ പലതും ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് അറിയില്ല പലപ്പോഴും നമ്മൾ തന്നെ സംശയിക്കാറുണ്ട് കാരണം ഒരു വാർത്ത തന്നെ പല രീതിയിലാണ് എല്ലാ മാധ്യമങ്ങളിലും അച്ചടിച്ചുവരാറ്